ഞാൻ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കാറ് ഒരുദിവസം ഒരു വൺ പോയിൻ്റ് ഫൈവ് ജി ബി അതായത് ആ ദിവസത്തെ ഡാറ്റ മുഴുവനും ഉപയോഗിച്ച് തീർക്കാറുണ്ട് നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊ ഇതൊന്നും ഇതുവരെ നേരിട്ടിട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നല്ല റേഞ്ച് ആണിവിടെ